നമ്മളുടെ ചിത്രങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് മെയിൻലി ഇത് ഫോട്ടോഷോപ്പാണ് ഉപയോഗിക്കുക ഫോട്ടോഷോപ്പ് കൂടുതലും സ്റ്റുഡിയോ സ്റ്റുഡിയോ ആൾക്കാരാണ് ഉപയോഗിക്കുന്നതിപ്പം അതിൽ ഫോർ എക്സാമ്പിൾ ഡിഫറൻ്റ് ഫംഗ്ഷൻസ് എന്നു പറയുമ്പോൾ മാര്യേജ് ഹൗസ് വാമിങ്ങ് ബാപ്റ്റിസം അതുപോലെ തന്നെ മരിച്ചടക്ക് അതുപോലെതന്നെ ഇത്തരം പൊതു ചടങ്ങുകൾ ഇപ്പോൾ അല്ലെങ്കിലൊരു പുതിയ സ്ഥാപനത്തിൻ്റെ ഉൽഘാടനം ഇനാഗുറേഷന് അതുപോലെതന്നേ എന്തെങ്കിലും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെയെല്ലാം ഓരോ ഫോട്ടോസിൻ്റേയും ഓരോ ഫോട്ടോസ് അങ്ങനത്തെ അവരുടെ മെമ്മറീസിന് വേണ്ടിയിട്ടിപ്പം എടുക്കുമ്പോഴത്തേക്ക് അവർ എന്നാ എന്നാ ചെയ്യാനാ ഫോട്ടോസിന് എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യുന്നതെന്നു പറഞ്ഞാൽ അതിന് കൂടുതൽ കളറ് കൊടുക്കുക കൂടുതൽ ലൈറ്റ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നത് അത് അടുത്തതായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മൊബൈൽ ക്യാമറയിലുള്ള ഫംഗ്ഷൻ മൊബൈൽ ക്യാമറയിൽ തന്നെ ഉള്ള ഡിഫറൻ്റ് ഡിഫറൻ്റ് ഫംഗ്ഷൻസുണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓരോ ഫോട്ടോ എടുത്തതിനകത്ത് പല എഫക്റ്റുകൾ ഏഡ് ചെയ്യാം പിന്നെ അതിൻ്റെ ഫോട്ടോസ് നമുക്ക് കോപ്പി ചെയ്യാം അതുപോലെതന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം പല പല സൗകര്യങ്ങൾ അതുപോലെ ഉണ്ട് അതുപോലെതന്നെ സോഷ്യൽ മീഡിയ വെക്കുമ്പോഴത്തേക്ക് ഓരോ റീൽസ് നമ്മൾ റീൽസ് എടുക്കുമ്പോൾ നമ്മൾ നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടങ്ങോട്ടൊക്കെ ഓരോ പാട്ടുകൾ എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റും അപ്പം അതൊക്കെ അനുസരിച്ച് നമ്മൾ ഇന്നത്തെ തലമുറ റീൽസിന് പുറകെ ഒരുപാട് കാണാം ഉണ്ട് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെതന്നെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് മിസ്സ്യൂസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമുണ്ട് ഫോട്ടോഷോപ്പിലൂടെ ഈ മോർഫിങ്ങ് ഇതിലൂടെ തന്നെ ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ ബാധിക്കത്തക്ക വിധം ഇത്തരം സൗകര്യങ്ങളെ മിസ്സ്യൂസ് ചെയ്യുന്ന സംഭവം വളർന്നു വരുന്നുണ്ട് അതുപോലെതന്നെ സെൽഫി നമ്മൾ മൊബൈലിൽ സെൽഫി എടുത്തിട്ട് അതുപോലെതന്നെ അതിനകത്ത് തന്നെ ഓരോ ക്യാം നമ്മളോരോ ഫോട്ടോ എടുക്കുമ്പോഴും അതിനകത്തെ പല തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാൻ പിന്നേ എടുക്കാൻ സ്റ്റാറ്റസിടാൻ സാധിക്കുന്നുണ്ട് ഇപ്പം അതുപോലെതന്നെ ഇപ്പം നമ്മൾ വാട്സ്പ്പ് സ്റ്റാറ്റസുകൾ അങ്ങനെ അതുപോലെതന്നെ റീൽസ് ഇത്തരം കാര്യങ്ങളെല്ലാം സെൽഫിയിലൂടെ എടുത്തുകൊണ്ട് അതിനെ എഡിറ്റ് ചെയ്ത് പാട്ടുകൾ കയറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ചില എഫക്ട്സ്കൾ ഏഡ് ചെയ്തുകൊണ്ട് ഇതിനെ പല കാര്യങ്ങൾ അവിടെ പല സോഷ്യൽ മീഡിയകളിൽ പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ പോസ്റ്ററുകൾ ബാനറുകൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോർ എക്സാംബിൾ ഒരു നമ്മൾ ബർത്ത് ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഫംഗ്ഷൻ ഒരു ഇനാഗുറേഷൻ ഒരു പൊതു പബ്ലിക് പ്ലേസിൽ ഒരു പാർട്ടി മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളതിൻ്റെ അതുപോലെത്തന്നെ നമ്മൾ മാര്യേജിന്റെയൊക്കെ ഓരോ ഫങ്ഷൻ്റെ ആൽബംസ് വേണ്ടി ഈ ഇതെല്ലം ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെത്തന്നെ പോസ്റ്ററുകൾ ഉണ്ടാക്കാനും ബാനറുകളങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ